യോഗ ഒരു സാമൂഹിക ബോധം അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധവും വളർത്തുന്നതിന് വളരെ പ്രയോജനകരമാണ് നമുക്കറിയാം അടുത്ത നാളുകളിൽ തന്നെ ഭാരതത്തിൽ യോഗ ഒരു പൊതു ബോധം വളർത്തുകയും നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പടെ മന്ത്രിമാരുൾപ്പടെ സാമൂഹിക പരിഷ്കർത്താക്കളും സാമൂഹിക നേതാക്കന്മാരുമൊക്കെ ഒരുമിച്ച് യോഗ ചെയ്തപ്പോൾ അത് ലോകം ശ്രദ്ധിച്ചു പല രാജ്യങ്ങളും അതിൻ്റെ വക്താക്കളായിട്ട് മുന്നോട്ട് വരികയും അവരുടെ രാജ്യങ്ങളിൽ ഇതു സംഘടിപ്പിക്കണമെന്നും ആവശ്യത്തിന് പരിശീലനം കൊടുക്കാൻ അറിയാവുന്ന ആൾക്കാരെ വേണമെന്നുമൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി അതുപോലെ നമ്മുടെ പല സാംസ്കാരിക സംഘടനകളും ഒക്കെ യോഗ സംഘടിപ്പിക്കുകയും അവയ്ക്കൊക്കെ ഒരു സാമൂഹ്യ ബോധം വളർത്തി എടുക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരോടൊപ്പം നമ്മളുമുണ്ട് എന്നുള്ളൊരു ചിന്ത വളർത്തിക്കൊണ്ടു വരുന്നതിനും ഈ യോഗ പരിശീലനം വളരെ പ്രയോജനകരമാണ് രണ്ട് രീതിയിലും യോഗ ചെയ്യുന്നത് നല്ലതാണ് ഒറ്റയ്ക്ക് ഇപ്പം എല്ലാവർക്കും ഒരുമിച്ച് യോഗ ചെയ്യുക പരിശീലിപ്പിക്കുക എന്നൊന്നും പ്രായോഗികമൊന്നുമല്ല കാരണം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പൊതു സമൂഹമെന്ന നിലയിൽ യോഗയിലേർപ്പെടുക അസാധ്യമാണ് അപ്പോൾ അവർ നന്നായിട്ട് ചെറുപ്പം മുതലേ യോഗ പരിശീലിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിലവർ ഒരുമിച്ചോ ഒക്കെ യോഗ ചെയ്യുന്നത് നല്ലതാണ് അതിൽനിന്ന് അവർ ഊർജ്ജം കണ്ടെത്തുകയും അവരുടെ സ്വഭാവ സവിശേഷതകൾ പരിപോഷിപ്പിക്കുന്നതിനു കാരണമായി തീരുകയും ചെയ്യും അതു പോലെ തന്നെ ഗുണകരമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ സംഘം ചേർന്ന് സംഘടനകൾ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഒരുമിച്ചു കൂടി യോഗ സംഘടിപ്പിക്കുന്നതും ചെയ്യുന്നത് പക്ഷേയത് ഒരു നിശ്ചിത സമയത്തു മാത്രമേ ചെയ്യാനായിട്ടവർക്ക് സാധിക്കുകയുള്ളു ഒരു കണ്ടിന്യൂസായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കയില്ല അത് ഒരു തുടർച്ചയുണ്ടാകണം ഞാനേതെങ്കിലും വർഷത്തിലൊന്നോ അല്ലെങ്കിലൊന്നോ രണ്ടോ തവണ യോഗ ചെയ്യുക യോഗയുടെ സംഘടിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി അത് ദൈനംദിന ജീവിതത്തിൻറ്റൊരു ഭാഗമായിട്ടൊക്കെ മാറുകയാണെങ്കിൽ ഒട്ടുമിക്ക മനുഷ്യരും ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈശ്വര വിശ്വാസികളാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ ഒരു പ്രാർത്ഥന പോലെ തന്നെ ഏകാഗ്രതയോടെ മനസ്സിനെ കൊണ്ടു വരുന്നതിനും അവരുടെ മനസ്സിലെ ടെൻഷനുകളും ആകുലതകളും ആശങ്കകളുമൊക്കെ മാറ്റുന്നതിനും സ്വസ്ഥമായിട്ടിരുന്ന് മനസ്സിനെ ഏകാഗ്രം ആക്കുന്നതിനുമൊക്കെ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള അനുദിന ജീവിതത്തിലെ യോഗ ഉപകാരപ്രദമാണ് അപ്പം പക്ഷെ നമ്മളങ്ങനത്തെ ഒരു സംസ്കാരം വളർത്തി എടുക്കണം വളർത്തി എടുത്തെങ്കിൽ മാത്രമേയെന്നു പറഞ്ഞാൽ സ്കൂളുകൾ വഴി അതു പോലെ കോളേജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ ഇതു പരിശീലിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർദേശിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് വരും ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത നാളുകളിലായിട്ട് നമ്മുടെ കോളേജുകളിൽ കാമ്പസുകളിൽ കുട്ടികളക്രമാസക്തരായിട്ടു മാറുന്നു മദ്യത്തിനും മയക്കു മരുന്നിനും ഇവരടിമകളാകുന്നു സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും ദ്രോഹിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ ഇവരുടെയെല്ലാം മനസ്സിനെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് മദ്യവും മയക്കു മരുന്നുമാണ് ഇപ്പം സമൂഹത്തോടൊരു പ്രതിബന്ധതയോ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമോ ഇവർക്കില്ലാതെ പോകുന്നു ആ സന്ദർഭങ്ങളിൽ ഇതു പോലെയുള്ള യോഗകൾ സ്കൂളുകൾ സ്കൂൾ തലം മുതൽ പരിശീലിപ്പിച്ചു വരികയും അതിനുള്ളൊരു സംവിധാനം കണ്ടെത്തുകയും ചെയ്താൽ അങ്ങനത്തെ ഒരു സംസ്കാരം ജീവിത ശൈലി മനുഷ്യർ ശീലിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത്രം ഒറ്റപ്പെടുത്തലുകളിൽ നിന്നു വരുന്ന അപകർഷതാബോധവും അതു മൂലം ഈ മദ്യത്തിനും മയക്കു മരുന്നിനും അടിമകളാകുന്ന പ്രകൃതവും അവരിൽ നിന്നു മാറിപ്പോകും അപ്പം തീർച്ചയായിട്ടും ആ ഒരു അവരുടെ മനസ്സിനെ തന്നെ കണ്ടെത്തുന്നതിനും മനസ്സിലെ കുറവുകൾ പരിഹരിക്കുന്നതിനും യോഗ ഏകാഗ്രതയോടെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം അത് നമ്മുടെ ഞാനാദ്യമേ സൂചിപ്പിച്ചത് പോലെ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഒന്നിച്ച് സംഘടിപ്പിക്കുകയും നമ്മളീ സ്കൂളുകളിലൊക്കെ അസംബ്ലി കൂടുന്നതു പോലെ അല്ലെങ്കിൽ കോളേജുകളിൽ മറ്റു ഫംഗ്ഷനുകൾ ഒക്കെ ഒരുമിച്ച് കുട്ടികളെ അണിനിരത്തുന്നതു പോലെ അതൊക്കെ നല്ലയൊരു ചിട്ടയോടു കൂടി ഒരു ഭംഗിയോടു കൂടി നടത്തുകയാണെങ്കിൽ കുട്ടികൾ തമ്മിലും സമൂഹത്തോടും അദ്ധ്യാപകരോടും നല്ല ഉത്തരവാദിത്ത്വവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ അവർ സഹായിക്കും അതു പക്ഷെ നമ്മുടെ ഭരണകർത്താക്കൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രോത്സാഹനവും സ്കൂളുകൾക്കും സമൂഹത്തിനും ഒക്കെ നൽകുകയും ചെയ്യണം ഓക്കെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി